എനിക്ക് വേറെ ഏതേലും രാജ്യം പോവാന് അല്ലെങ്കില് സന്ദര്ശിക്കാനെയിട്ടൊരു അവസരം കിട്ടുകയാണെങ്കിൽ എനിക്ക് പോകാനിഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞൽ അത് സ്ഥലം അല്ലെങ്കില് രാജ്യം എന്ന് പറഞ്ഞാലത് യു എ ഇ ആണ് കാരണം ഞാനെന്റെ ചെറിയ ക്ലാസ്സ് തൊട്ടു പത്തുവരെ പഠിച്ചിട്ടുള്ളത് അലൈനിലാണ് യു എ യില് അതു കൊണ്ട് തന്നെ എന്റെ ഒരുപാടധികം കൂട്ടുകാരവിടെ ഉണ്ട് അതെപോലെ തന്നെ യു എ ഇ വളരെ കാമും സൈലന്റ്റും പീസ് ഫുള്ളും ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഒരുപാട് ടാക്സെസ് ഇല്ലാത്ത ഒരു രാജ്യമാണ് വളരെ കംഫൊര്ട്ടബിള് ആയിട്ടുള്ള ഒരു രാജ്യമാണ് വളരെ സേഫായിട്ടുള്ള ഒരു രാജ്യമാണ് അതേപോലെ തന്നെ എക്സ്പെന്സീവാണെങ്കില് പോലും ഓവര് എക്സ്പെന്സീവ് അല്ലാതെ നമുക്ക് മാനേജ് ചെയ്യാന് പറ്റുന്ന പോലത്തെ എക്സ്പെന്സീവായിട്ടുള്ള ഒരു രാജ്യമാണ് അതേപോലെ തന്നെ എന്റെര്ടെയിന്മെന്റ്റിന് ആയിട്ട് ഒരുപാടധികം ഓപ്ഷന്സും ഒരുപാടധികം ഒരുപാടധികം പ്രോഗ്രാംസും കാര്യങ്ങളും ഉള്ള ഒരു രാജ്യം കൂടിയാണ് അതേപോലെ തന്നെ അവിടുത്തെ ഗവണ്മെന്റ് ടൂറിസ്റ്റ്കളേയും അതേപോലെ തന്നെ അവിടെ നിൽക്കുന്ന റെസിസ് റെസിഡെന്സ് സോറി റെസിഡെന്സിനെയൊക്കെ വളരെ വളരെ നല്ല രീതിക്കാണ് ട്രീറ്റ് ചെയ്യുന്നത് വളരെ നല്ലൊരു ഗവണ്മെന്റ്റാണ് അവിടെയുള്ളത് ടാക്സ് ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചെല്ലുന്നത് വളരെയധികം ഞാന് പറഞ്ഞില്ലേ എക്സ്പെന്സീവാണെങ്കില് പോലും ഓവര് എക്സ്പെന്സീവല്ല സൊ ഈ പറഞ്ഞത് പോലെ യു എ ഇ യില് പോകാനാണ് എന്റെ ഇന്റെറസ്റ്റ് ഈ പറഞ്ഞത് പോലെ വളരെ ഫ്രീയാണ് നമുക്ക് നമ്മുടെ ഇതായൊരു ഒരു പീസുണ്ടാവും അവിടെ വളരെ റിലാക്സിങ്ങായിട്ടുള്ള സ്ഥലമാണ് അതൊക്കെത്തന്നെ